ഹലോ ആരായിരുന്നു സംസാരിക്കുന്നേ അതെയല്ലോ മാഡം

ഓ ആണോ അത് ചെലപ്പം ഇവിടുന്ന് മേടിച്ച ചെടിക്ക് അങ്ങനെ പരിക്കൊന്നും പറ്റാത്തതാണ് ചെലപ്പം വെയിൽ ചെലപ്പം വെയിലുകൊണ്ട് പെട്ടെന്ന് തളർന്നുപോയതായിരിക്കാം അത് വെയിലത്തുനിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് റീപ്ലാന്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കു തോന്നുന്നു സാധാരണ നമ്മൾ ഇപ്പം മാഡത്തിന്റെ വീടിന്റെ ഗേറ്റിന്റെ സൈഡിൽ ഒരു കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതേല് നെറ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കോണ് ഷേപ്പിൽ ആക്കത്തില്ലേ അതുപോലെ കോണ് ഷേപ്പിൽ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ചകിരിച്ചോറും അതേപോലെത്തന്നെ കുറച്ച് കരിക്കട്ടയില്ലേ കരിക്കട്ടയും കൂടി ഇട്ടിട്ട് ഓര്ക്കിഡ് വെക്കുകയാണെങ്കിൽ നല്ല വെയിൽ വെട്ടം കിട്ടുന്ന ഇടത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ആ ചെടി നമുക്ക് അങ്ങനെ നോക്കാം അല്ലാതെ ഇപ്പോൾ മാഡം ഇവിടുന്ന് വേറെ എന്തെങ്കിലും ചെടി പര്ച്ചേസ് ചെയ്തായിരുന്നോ ആണല്ലേ അപ്പോൾ റോസ് ലില്ലി ആണെങ്കിലും റോസ് ലില്ലിക്കും വൈറ്റ് ലില്ലിക്കും നമുക്ക് ഒരേ കാര്യത്തിൽ ഈ പുഴുവിന്റെ കാര്യത്തിൽ ചെയ്യാന് പറ്റുന്ന നാച്ചുറല് റെമഡീന്ന് പറയുന്നത് നമ്മുടെ ആര്യവേപ്പിന്റെ വെള്ളം ഇല്ലേ ആര്യവേപ്പ് കുറച്ചുനേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊരു സ്പ്രേ ബോട്ട് നമുക്ക് എന്തെങ്കിലും പഴയ എന്തെങ്കിലും കുപ്പിയിൽ ആക്കിയിട്ട് അതിലിങ്ങനെ ചെറുതായിട്ട് അടിച്ചുകൊടുക്കുകയാണെങ്കിൽ പുഴു ശല്യം കുറക്കാൻ പറ്റും അങ്ങനെ മാഡം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ മാഡത്തിന് എപ്പം വേണമെങ്കിലും ഇവിടെവന്ന് ചെടിയുടെ പുതിയ പുതിയ കളക്ഷന്സ്സ് ഒക്കെ മാഡത്തിന് വേറെ എന്തെങ്കിലും ഇന്ട്രെസ്റ്റ് ഏരിയ ഉണ്ടോ ഇന്ന ചെടി വളര്ത്തണം എന്നുള്ളത് ആ ഇവിടെ ഞാൻ ഇപ്പം നമുക്ക് കറണ്ട് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചെടികളുടെ പേര് പറയാം സ്നേക് പ്ലാന്റ് വന്നിട്ടുണ്ട് അഗ്ലോണിമ വന്നിട്ടുണ്ട് അതേപോലെത്തന്നെ മണിപ്ലാന്റിന്റെ തന്നെ വേറെ ഒരു വെറൈറ്റി ചെടിയുംകൂടെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ മാഡത്തിന്റെ പ്രിഫറന്സ് വെച്ചിട്ട് നമുക്ക് അത് അനുസരിച്ച് ഒരെണ്ണത്തിന് എക്സ്ട്രാ ഒരെണ്ണംകൂടെ തരുന്ന രീതിയിൽ നമുക്ക് ആക്കാം മാഡം ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ മാഡത്തിന്റെ വീട്ടിൽ മാവോ തെങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ അപ്പോൾ അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പുഴുശല്യം ഒന്നും ഇല്ലാതെ വളരുന്നുണ്ടല്ലോ അല്ലേ കുഴപ്പം ഒന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള മരുന്നുകൾ അതിന് അടിക്കാനുള്ള മരുന്നുകളും ഇവിടുന്ന് ഇപ്പം അ അവിടെ നമുക്ക് തെങ്ങിന്റെ ഇത് വെട്ടാൻ വേണ്ടിയിട്ട് ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആളിനെ അറേഞ്ച് ചെയ്തും തരുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഈ പിന്നെ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണോ മാഡം സപ്പോട്ട തൈ മാത്രം മതിയോ ഓക്കെ മാഡം താങ്ക് യു താങ്ക് യു